ഹലോ വെൽക്കം ടു സിറ്റു സി കാർ വാഷ് ആ ഓക്കെ പറഞ്ഞോളൂ ആയി ആ ആ അതെ ആ മനസ്സിലായി അതേ അപ്പോയിയിന്മെന്റ് എടുക്കണമോ എന്നു ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇപ്പോള് തന്നെ ഒരു പത്തു വണ്ടി കിടപ്പുണ്ട് കഴിയാനായിട്ട് അതല്ലാതെ പത്തു വണ്ടിയുണ്ട് അതല്ലാതെ തന്നെ ഒരു എല്ലാം ഫുൾ ബോഡിയും പിന്നെ ഫുൾ ബോഡി മാത്രമേ ഉള്ളൂ പിന്ന ബാക്കിയൊക്കെ കിടക്കുന്നത് മറ്റേ നമ്മള് സെറാമിക്കിനുവേണ്ടി കിടക്കുന്ന വണ്ടികളാണ് ആ പിന്നെ നിങ്ങള് വേറെ എന്തേലും എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ കാര് വാഷ് മാത്രമേ ഉള്ളോ ചെയ്യുന്നുണ്ട് ആ ഹാ വരുന്നുണ്ട് വരുന്നുണ്ട് ആ ഓക്കെ അപ്പോള് നിങ്ങളെപ്പോഴത്തേക്കു വരാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മള്ക്കു മൊത്തത്തില് ഈ മുപ്പത് സ്റ്റാഫ് ഉണ്ട് മുപ്പത് സ്റ്റാഫ് ആ ഒരു വണ്ടിക്ക് ഏകദേശം പത്ത് സ്റ്റാഫ് മതി പെട്ടെന്ന് അവര് ഒരു അര മണിക്കൂറുകൊണ്ടു വണ്ടി കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് ഇന്റീരിയര് എക്സ്റ്റീരിയര് ഫുള് തരും ഞങ്ങളൊരു രണ്ടു മണിക്കൂര് കഴിഞ്ഞിട്ടു വണ്ടി കൊണ്ടുവന്നിട്ടുകഴിഞ്ഞാല് ഒരു ഇപ്പോള് ഒരു ഇപ്പോള് സമയം പതിനൊന്ന് മണി നിങ്ങള് ഇപ്പോള് ഒരു വണ്ടി കൊണ്ടിട്ടേക്കുകയാണെങ്കിൽ ഒരു നാലുമണിയാകുമ്പോഴത്തേനു വണ്ടി കൊണ്ടുപോകാൻ പറ്റും ഓക്കെ മൊത്തം പിന്നെ ഡീറ്റെയ്ലിംഗ് ചെയ്യണെങ്കിൽ പിന്നെ ഒരു മണിക്കൂര് താമസം വരും കാരണം അതിനുള്ള വർക്കേഴ്സ് ഇന്ന് വൈകിട്ടത്തിനേ എത്തുകയുള്ളൂ പിന്നെ മെറ്റീരിയൽസ് വരാനുണ്ട് അതുകൊണ്ടു മാത്രമാണ് ആ സാധനങ്ങള് വരാനുണ്ട് കുറച്ച്

എല്ലാം കൂടെച്ചെയ്യാന് ആഹാ അതെല്ലാം ഉണ്ട് നമ്മളെല്ലാം ഉണ്ട് എല്ലാ സെറ്റും ഉണ്ട് സ്റ്റീരിയോ എല്ലാ സെറ്റപ്പും ഉണ്ട് ആ നമ്മുടെ സിറ്റീസിലെല്ലാം അവ അവൈലബിളാണ് സ്റ്റീരിയോ സെറ്റപ്പ് സ്പീക്കേഴ്സ് ആ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ലൈറ്റിങ് കണ്ടോ നമുക്ക് മാറാം കുഴപ്പമില്ല വീലലെയ്ന്മെന്റ് എല്ലാം ഉണ്ട് മറ്റേ ആ ഉണ്ടുണ്ട് ഏത് കമ്പനിയുടെ ടയറിടാനായിരുന്നു എം ആർ എഫ് ഉണ്ട് എല്ലാ ടയറും ഉണ്ട് എല്ലാ കമ്പനീസും ഉണ്ട് കമ്പനി എന്നു പറഞ്ഞാല്മതി അപ്പോളോ ഉണ്ട് എല്ലാം ഉണ്ട് ആ താങ്കളുടെ കാറേതായിരുന്നു സാറിന്റെ ടൊയോട്ട ഹൈറൈഡറല്ലേ ആ ആ നല്ല വണ്ടിയാണല്ലോ ആ ആാ ആ അതു ശരിയാണ് അതു ശരിയാണ് അ നമുക്ക് വണ്ടി മനസ്സിലാവുകയുള്ളൂ ആ ആ ശരിയാണ് സാർ നേരത്തെ പറ്റുന്നതാണെങ്കില് നേരത്തെ വണ്ടി കൊണ്ടുവരുവാണെങ്കില് നമുക്ക് പറ്റുന്നതുപോലെ ചെയ്യാം കൊണ്ടുവരാൻ പറ്റും കൊണ്ടുവരാൻ പറ്റും കൊണ്ടുവരാൻ പറ്റും മതി ആ അതിന് അതിനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് സാർ നമ്മള് സാർ വന്നുകഴിഞ്ഞെങ്കിൽ നമ്മള് തിരിച്ചു വേറെ ടാക്സി അറേഞ്ച് ചെയ്തുതരും നമ്മുടെ യെസ് നമ്മുടെ കമ്പനിയുടെ വണ്ടിയാണ് ചാർജ് നമ്മളതിനകത്ത് മിനിമം ചാർജസേ ഉള്ളൂ കിലോ മീറ്റര് ഫൈവ് കിലോമീറ്ററിന് ഹണ്ട്രഡ് റൂപ്പീസ് വച്ച്

ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഞങ്ങള് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ വിളിച്ചാല് മതി കോൺടാക്ട് നമ്പർ ഇതു തന്നെയാണേ ഓക്കെ ഓക്കെ വെൽക്കം